ഞങ്ങളുടെ അടുത്ത് പലചരക്ക് കടയിൽ ഞാന് പോകാറുണ്ട് വീട്ടിലെ സാധനങ്ങള് ഒക്കെ ഞാനാണ് മേടിച്ചു കൊടുക്കാറുള്ളത് അപ്പോൾ പച്ചക്കറികള് ഒക്കെ ഞാന് മേടിക്കാന് നേരം വില പറഞ്ഞായിരിക്കും മേടിക്കുന്നത് ഒരു പാട് വില പറഞ്ഞാണ് അവരുടെ അടുത്ത് നിന്ന് സാധനങ്ങള് മേടിക്കാറുള്ളത് പിന്നെ ഇവിടുത്തെ കടകളില് ആണെങ്കില് പച്ചക്കറിക്കൊക്കെ ഒരുപാട് വിലകൂടുതല് കൂടി ആണ് വിലയാണ് ഇവിടുത്തെ കടകളില് അപ്പോൾ നമ്മൾ കഴിവതും നമ്മള് അപ്പം പച്ചക്കറികള് എല്ലാം അവരോടു ചെറിയ രീതിയില് വില പറഞ്ഞാണ് നമ്മൾ അവർ പറയുന്നതിനേക്കാട്ടിൽ രണ്ടു രൂപ കുറച്ചാണ് നമ്മള് എന്നും കൊടുത്ത് മേടിക്കാറുള്ളത് എല്ലാ ദിവസവും മേടിക്കാറില്ല പക്ഷേ ചില ദിവസങ്ങളില് നമ്മള് മേടിക്കും ഞങ്ങൾ സാധാരണ മേടിക്കാറ് എന്ന് പറയുമ്പോൾ ഒരു കെയ്സ് ആയിട്ടായിരിക്കും മേടിക്കാറുള്ളത് ചെറിയ ചെറുതായിട്ട് മേടിക്കാറില്ല മേടിക്കുമ്പോള് ഒരുമിച്ച് അങ്ങ് മേടിക്കും അപ്പം അവർ കുറച്ചു വില കുറച്ച് ആണ് നമുക്ക് സാധാരണ തരുന്നത് അത്രയും സാധനങ്ങള് ബള്ക്ക് ആയിട്ട് എടുക്കുമ്പോള് അതുകൊണ്ട് തന്നെ പിന്നെ ഞങ്ങൾ കൂടുതലും അങ്ങനെ കടയിൽ നിന്ന് മേടിക്കാറില്ല ഇവിടെ നമ്മുടെ വീട്ടിൽ തന്നെ കുറച്ച് കൃഷിയും കാര്യങ്ങളും ഒക്കെയുണ്ട് അതിനാല് വലിയ സീന് ഒന്നുമില്ല നമ്മൾ നല്ല രീതിയില് തന്നെ പോകുന്നു